അഞ്ച് പത്ത് രണ്ടായിരം രണ്ട് രണ്ട് രണ്ടായിരത്തി ഒന്ന് മൂന്ന് രണ്ട് രണ്ടായിരത്തി രണ്ട് നാല് രണ്ട് രണ്ടായിരത്തി മൂന്ന് അഞ്ച് രണ്ട് രണ്ടായിരത്തി നാല് ആറ് രണ്ട് രണ്ടായിരത്തി ആറ്